ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒന്ന് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ട് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി നാല്